ഈ മത്സ്യബന്ധനത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യം ബോട്ടിൽ നമ്മളിപ്പോൾ ബോട്ടിലൊക്കെയാണ് മീൻ പിടിക്കാൻ പോകുന്നതെങ്കിൽ ബോട്ടിൽ നമ്മൾ ഡീസൽ അടിച്ചിട്ടൊക്കെയാണ് പോവുക അപ്പം ഈ ബോട്ടിൽ ഡീസല് ഓയിൽ ഇങ്ങനത്തെയൊക്കെ കടലിലും ഇപ്പോൾ പുഴയിലാണെങ്കിലും മിക്സ് ആയി കഴിഞ്ഞാൽ ഈ മീനുകളൊക്കെ ചത്ത് പോകുന്നതിനും പിന്നെ മീനുകൾക്ക് ഒരു അസുഖങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ പുഴയോ അല്ലെങ്കിൽ കടലിനെയൊക്കെ വല്ലാണ്ട് മലിനീകരണമാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പിന്നെ നമ്മളിപ്പോൾ ഒരു കുളത്തിൽ മീൻ വളർത്തുകയാണെങ്കിൽ നമ്മൾ അതിന് ഫുഡ് കൊടുക്കുന്നത് കെമിക്കൽ ഫുഡാണ് നമ്മൾ വീട്ടിലുള്ള ചോറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കൊടുക്കുന്നത് അതിന് കൊടുക്കുന്നതെന്ന് വച്ചു കയിഞ്ഞാൽ ഇതിൻ്റേതായൊരു ഫുഡാണ് ആപ്പം അതിനകത്ത് എന്തെങ്കിലും കെമിക്കലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മളെ ഇപ്പോൾ കുളമാണെങ്കിലും മലിനീകരണമാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വളരെ പ്രശ്നമാണത് സമീപ കാലങ്ങളിൽ ജല മലിനീകരണം കൂടുതലായിട്ടുള്ളത്